ആ ഇത് ഞാൻ മലപ്പറത്തുനിന്നാണ് വിളിക്കുന്നത് ആ മാം എനിക്ക് കോൺസ്റ്റിപേഷൻ ഉണ്ട് ഡയറ്റ് ചോദിക്കാൻ വിളിച്ചതായിരുന്നു ആ എനിക്ക് ഓ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് പെട്ടെന്നാണ് യു കെ യ്ക്ക് വരേണ്ട ആവശ്യം വന്നത് അതുകൊണ്ട് എനിക്ക് അങ്ങട്ട് നേരിട്ട് കൺസൾട്ട് ചെയ്യാൻ പറ്റിയില്ല അത് പിന്നെ കോളിലൂടെ അങ്ങോട്ട് ചോദിക്കാമെന്ന് വിചാരിച്ചു ആ എൻ്റെ വയസ്സ് വരുന്നത് ഇരുപത്തിയൊന്ന് ആ മാരീഡ് ആണ് ഇല്ല മരുന്നൊന്നും എടുക്കുന്നില്ല മിനിഞ്ഞാന്ന് ഇതൊരു അലർജി വന്നതുകൊണ്ട് അലർജീൻ്റെ മരുന്ന് കുടിക്കുന്നുണ്ട്

ആ അതറിയില്ല മാം ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല എന്താണ് എനിക്ക് പീരീഡ്സ് ഒന്നും കറക്റ്റ് അല്ല നടക്കുന്നത് ആ ഓക്കെ ഓക്കെ ആ ഓക്കെ മാം പിന്നെ എനിക്ക് മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം എൻ്റെ കോൺസ്റ്റിപേഷൻ ആണ് എനിക്ക് തീരെ പോവുന്നില്ല ഇല്ല ഇല്ല മാം ഫുഡിലൂടെ എങ്ങനെ ഫുഡ്ഡ് ഡയറ്റ് ഒന്ന് പറഞ്ഞുതാരാമോ പറ്റത്തുള്ളോ ആ ഓക്കെ മാം ഓക്കെ മാം ഏയ് ഇല്ല ഇല്ല അങ്ങനെയൊന്നും ഇല്ല ആ അല്ല അല്ല മാം പിന്നെ ആ ചെക്ക് ആ അതൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ട് അതൊക്കെ നോർമൽ ആണ് പിന്നെ നല്ല ഹെയറ് ലോസ് ആവുന്നണ്ട് ആ അതറിയില്ല ഇവിടുത്തെ ആ ഉണ്ട് ഇനി ഇവിടെ വന്നതിന് ശേഷം ക്ലൈമറ്റിൻ്റെ പ്രശ്നം പിന്നെ വെള്ളത്തിൻ്റെ പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല പക്ഷെ നല്ല ഹെയറ് ലോസ് ആവുന്നുണ്ട് പറ്റത്തുള്ളൂ ആ ഞാൻ മാം വാട്ട്സ്ആപ്പ് നമ്പറിൽ എല്ലാ ഡീറ്റെയിൽസും അയക്കാം

അല്ല അല്ല നോൺവെജ് ആണ്

ആ ഓക്കെ ഓക്കെ ഓക്കെ ആ ആ ആ ഓക്കെ മാം ഓക്കെ മാം ഫുള്ളോ ആ അതെ അതെ ശ്രദ്ധിക്കാം ഓക്കെ മാം ആ ഓക്കെ മാം ഓക്കെ മാം ഓക്കെ ശരി മാം